ഇപ്പോൾ പുതിയ തലമുറ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഴയ സമ്പ്രദായങ്ങളോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല മാരേജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അത്പോലെ തന്നെ ഇപ്പം അവരോരോരുത്തരുടെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള രീതിയിലുള്ള റിലേഷനോ കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരുന്നില്ല അത്പോലെ തന്നെ ഇപ്പം നോക്കുവാണേൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഇടത്തും ലിവിങ്ങ് ടുഗതറ് അങ്ങനത്തെ ഒര് റിലേഷനും കാര്യങ്ങള് ഇപ്പോൾ മാരേജ് തന്നെയാണെന്നിണ്ടെങ്കിൽ തന്നെ ഇപ്പം യോചിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ ഡിവോഴ്സ് കാര്യങ്ങള് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടൊക്കെയാണ് വരുന്നത് ഇപ്പോൾ പണ്ടത്തെ തലമുറയെ പോലെ ഒരു വിവാഹം എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ നടത്തി അങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു രീതിയൊന്നുവല്ല ഇപ്പം എല്ലാം ഒരു ജസ്റ്റ് ഒരു എന്താണ് ഒരു ജസ്റ്റ് വൺ മന്ത് ടു മന്ത് എന്നാൽ രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ തന്നെ ലിവ് ഇൻ റിലേഷനെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും തന്നെ പോകുന്നത് അത്പോലെ തന്നെ ഓരോ താൽപര്യങ്ങളും കാര്യങ്ങൾക്കും അനുസരിച്ച് മാറുന്നുണ്ട് പിന്നെ ആളുകൾടെ ഇതും കാര്യങ്ങളും എന്താണ് ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് ആൾക്കാര് മാറുന്നു അങ്ങനത്തെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെയാണ് അത്പോലെ തന്നെ ഇപ്പോൾ ചടങ്ങ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ പണ്ടത്തെ പോലെ പണ്ടത്തെ രീതീലുള്ള ഒന്നും അല്ല അത്പോലെ തന്നെ ഇപ്പ പെട്ടെന്ന് നിങ്ങള് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻറ്റേതായ രീതികളും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചാണ് മാറിക്കൊണ്ടിരിക്കുന്നതും അവരുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടീട്ട് ഓരോ കാര്യങ്ങള് മാറ്റിയും മാറ്റി മറിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയാണ്